ഞങ്ങളുടെ പ്രദേശത്ത് ആശുപത്രികളിൽ നീണ്ട രീതിയിലുള്ള ക്യൂകളൊക്കെ ഉണ്ടാകാറുണ്ട് ഞാനെൻ്റെ മോ മോനെയും കൂട്ടിയിട്ടാണ് ആശുപത്രിയിൽ പോകാറുള്ളത് ആ അപ്പോൾ ചില സമയങ്ങളിൽ അവൻ നിന്നാൽപ്പോലും തീരാത്ത ക്യൂകളും കാര്യങ്ങളൊക്കേയാണ് അപ്പം ഇത്രയും വയസ്സുള്ള ഞാൻ നിൽക്കുമ്പോൾ കുറച്ച് ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം എനിക്ക് കാലിന് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് ചില ആൾക്കാർ എന്നെ കയറ്റിവിടും ചില ആൾക്കാർ എന്നെ കയറ്റി വിടാത്ത കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കുറേനേരം നിന്നിട്ട് വേണം നമുക്ക് ഓ പി ചീട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മെയ്നായിട്ടുള്ള വെല്ലുവിളിയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം എടുത്തിട്ട് പോയിട്ടും ഡോക്ടർ മര്യാദക്ക് പരിശോധിക്കാത്ത കുഴപ്പങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കൊരു പ്രശ്നമായിട്ടാണ് ഉള്ളത്